ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ട് രണ്ടായിരത്തി രണ്ട് അഞ്ച് രണ്ട് രണ്ടായിരത്തി മൂന്ന് ആറ് രണ്ട് രണ്ടായിരത്തി മൂന്ന് ആറ് ഏഴ് രണ്ടായിരത്തി ഒന്ന്